മലയാളം സംസാരിക്കുവാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് ബുദ്ധിമുട്ടില്ല പിന്നെ മറ്റുള്ള സ് ജില്ലകളെ മാറുന്നതിന് അനുസരിച്ച് നമുക്ക് അതിൻ്റെ ചെറിയ ചെറിയ വാക്ക് വാക്കുകൾക്കുള്ള വ്യത്യാസം വരുന്നുണ്ട് അത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല പൊതുവേ മലയാളം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷയാണ് മറ്റുള്ള ഭാഷകളെ അപേക്ഷിച്ച് ഹിന്ദിയോ മറ്റുള്ള ഇത് സംസ്കൃതത്തിൽ നിന്ന് വന്നതായോണ്ട് നമുക്ക് ചില ചില വാക്ക് അക്ഷരങ്ങൾ ങ്ങളുടെ വ്യത്യാസം ഇതുണ്ടാകും മറ്റുള്ള ഭാഷക്കാർക്ക് മലയാളം പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ മറ്റ് മറ്റുള്ള ഭാഷകൾ പഠിക്കുന്നതിന് ഇതിനേക്കാൾ കൂടുതൽ കൂടുതൽ അവർക്ക് നമ്മുടെ ഭാഷ പഠിക്കാനാണ് മലയാളം പഠിക്കുന്നതിനാണ് മറ്റുള്ള ഭാഷക്കാർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് കൂടുതലായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല എനിക്ക് മറ്റുള്ള ഭാഷകളും അറിയാം കുറച്ച് ഹിന്ദി സംസാരിക്കാം അറബി അറിയാം അങ്ങനെയുള്ള കുറച്ച് മൂന്ന് നാല് ഭാഷകൾ വേറെ അറിയാം എനിക്ക് എന്നെ സംബന്ധിച്ച് മലയാളം എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല പക്ഷേ മറ്റുള്ളവർ സംസാരിക്കും അവർ പറയുന്ന മലയാളം പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഉള്ള ഒരു ഭാഷയാണ് എന്നാണ് മറ്റുള്ളവരുടെ സംസാരം